ഹലോ ഹലോ ഇത് ഫർണിഷ് ഫർണിച്ചർ ഷോപ്പ് ഷോപ്പ് ഓണർ അല്ലേ എനിക്ക് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു വീട്ടിലേക്ക് ഒരു ദിവാൻ കോട്ട് കാര്യങ്ങളൊക്കെ വേണമായിരുന്നു ആറായിരം തൊട്ടാണോ അതിന്റെ കുഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് കൂടുതലായി ഓക്കെ ഓക്കെ പിന്നെ വാലിഡേറ്റ്സ് ആണല്ലേ ആ ചേഞ്ച് ചെയ്തുതരും ആ ഓക്കെ ബലം കൂടിയതും വരും ആ ഓക്കെ ഇതിന് ഓഫർ ആ ഓണത്തിൻ്റെ ഓഫർ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ആ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഓക്കെ ചെയ്തുതരും അല്ലേ ആ പിന്നെ എനിക്ക് രണ്ട് മൂന്ന് കുറച്ച് കൂടുതൽ സാധനം എടുക്കാൻ വേണ്ടിയായിരുന്നു ദിവാൻ കോട്ട് മാത്രമല്ല എനിക്ക് ഒരു കോർണർ സെറ്റി വേണമായിരുന്നു നൗ നൈൻ തൗസൻഡിന്റെയാണോ ആ ഓക്കെ ഓക്കെ ആ അപ്പം അതിന്റെ ലിസ്റ്റ് ആ ഓക്കെ ഓക്കെ നമ്മൾ ഇവിടുന്ന് അളവ് എടുത്ത് അങ്ങനെ എന്തെങ്കിലും തരേണ്ടി വരുമോ നോക്കിയാൽ മതി അല്ലേ അല്ല നമ്മള എന്തായാലും നമ്മുടെ ഇത് ആ ഓക്കെ ഓക്കെ ആ ആ അങ്ങനെ ആണെങ്കിൽ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ ഉള്ള സെറ്റി വേണം അതായത് സ്പ്രിംഗ് കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് പൂക്കൾ ഉള്ളതും ആ അങ്ങനത്തെ അപ്പം അതിനൊക്കെ ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ആ അങ്ങനെ ആണെങ്കിൽ അതൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ഉണ്ടാക്കുവാണോ അതോ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ആ എത്തിച്ചേരാൻ പറ്റും അല്ലേ അങ്ങനെ ആണെങ്കിൽ നാളെ ഞാൻ വരാം എന്നാൽ എന്നിട്ട് ആ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ദിവാൻ കോട്ട് ഇനി നാളെത്തന്നെ എടുക്കാമല്ലോ ഓക്കെ എന്നാൽ